എൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഞാൻ ചില എൻ്റെ കസിൻസ് അതുപോലെ ഫ്രണ്ട്സൊക്കെ റീൽ ചെയ്യുമ്പോൾ ഞാനെൻ്റെ ക്യാമറയിലൂടെ എടുത്തു കൊടുക്കാറുണ്ട് അതുപോലെതന്നെ ഹ്രസ്വ ചിത്രങ്ങളും എന്നിങ്ങനെയുള്ള നല്ല ഒരു ക്രിയേറ്റിവിറ്റിയായിട്ടുള്ള ഒരുപാട് ഫോട്ടോസും അതുപോലെ റീലുകളൊക്കെ ഞാനെടുക്കാറുണ്ട് പിന്നെ പകർത്തു എൻ്റെ ഫോണിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഞാൻ കുറച്ചു കൂടി ക്രിയേറ്റിവിറ്റി കൊണ്ടു വരാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇപ്പം ഫോട്ടോസെടുക്കുന്നതാണെങ്കിലും ഇപ്പം വീഡിയോസാണെങ്കിലും അതിലെന്തെങ്കിലും വെറുതെ നിന്ന് ഫോട്ടോ എടുക്കുന്നതല്ലാതേ ചിത്രങ്ങൾ പകർത്തുമ്പോൾ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആൾക്കാർ എന്താണ് കൂടുതലിഷ്ടപ്പെടുന്നത് അതൊക്കെ പരിഗണിച്ചാണ് ഞാനും ഫോട്ടോസും അതുപോലെ റീലുകളൊക്കെ എടുക്കാറ് അതുപോലെ നല്ല എഡിറ്റിങ്ങോട് കൂടിയായിട്ടാണ് ഞാനത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാറ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നോക്കാറുണ്ട്